ബൈക്ക് യാത്രയിൽ എപ്പോഴും നമ്മൾ കരുതേണ്ട ഒരു കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ എപ്പോഴും പ്രാധാന്യം നൽകണം ഹെൽമെറ്റ് തീർച്ചയായും ഉപയോഗിച്ച് കൊണ്ട് മാത്രമേ നമ്മൾ ബൈക്ക് ഓടിക്കാൻ പാടുള്ളു ഞാൻ ഹെൽമറ്റില്ലാതെ ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കാറില്ല പിന്നെ വണ്ടിയിൽ വണ്ടി മെക്കാനിക്കൽ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് വണ്ടിയിൽ തന്നെയുള്ള നമ്മളുടെ സ്പാനറുകൾ അത്തരം ക ഒരു എക്സ്ട്രാ അഡീഷനൽ പ്ലഗ് അതൊക്കെയാണ് മെയ്നായിട്ട് വണ്ടിയിൽ കരുതാറുള്ളത് എന്തെങ്കിലും ചെ ചിലപ്പോൾ പ്ലഗ്ഗിലൊക്കെ കരി പിടിക്കുകയാണെങ്കിൽ അ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വരികയാണെങ്കിൽ അന്നേരത്ത് നമുക്ക് അത് അഴിച്ചിട്ട് പുതിയ പ്ലഗ് അന്നേരത്ത് വേറെ അന്വേഷിച്ച് പോകണ്ട നമുക്ക് നമ്മുടെ കയ്യിലൊരു സ്പെയറുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഇടാൻ പറ്റും പിന്നെ വേറെ കാര്യമായിട്ടുള്ള തകരാറൊന്നും എൻ്റെ ബൈക്ക് യാത്രയിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ഒരിക്കൽ ഒരു ആണി കൊണ്ടിട്ട് ടയർ ബാക്കിലെ ടയർ ഒന്ന് പഞ്ചറായിട്ടുണ്ടായിരുന്നു അത് ട്യൂബ് ലെസ് ടയറായതുകൊണ്ട്തന്നെ പെട്ടെന്ന് കാറ്റു പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് കുറേശ്ശെ എയർ കുറഞ്ഞത് മനസ്സിലാക്കുകയും ടയർ ടയറിൻ്റെ ഒരു കട പഞ്ചറൊട്ടിക്കുന്ന ഒരു കട അന്വേഷിച്ച് പോവുകയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ വണ്ടി ഓടിച്ച് തന്നെ പോകാൻ പറ്റി കാരണം പെട്ടെന്ന് എയർ പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ കടയിലേക്ക് പോയി ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അന്ന് സാധിച്ചു